ബൈക്ക് യാത്ര പലപ്പോഴും ഏറെ സൗകര്യപ്രദവും അതുപോലെ തന്നെ വേറെ ആഗ്രഹിക്കുന്ന ഒരു യാത്രാരീതിയുമാണ് അതിൻ്റെ കാരണം ബൈക്ക് യാത്രയെന്നതു പലപ്പോഴും നമ്മുടെ സൗകര്യങ്ങൾക്കെല്ലാം അത് പരിമിതിപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് കാരണം ഏതുരീതിയിലുള്ള റോഡുകളാണെങ്കിലും പാതകളാണെങ്കിലും അത് മണ്ണിട്ടതാകട്ടെ കട്ട പതിച്ചതാകട്ടെ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതാകട്ടെ അതല്ലെങ്കിൽ ടാറ് പതിച്ചതാകട്ടെ ഇടുങ്ങിയ റോഡാകട്ടെ അതല്ലെങ്കിൽ വിശാലമായ റോഡാകട്ടെ അതുമല്ലെങ്കിൽ പാതകളെന്ന് പറയാൻ പറ്റാത്ത വിധം അലങ്കോലപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളാകട്ടെ എന്ത് രീതിയിലാണെങ്കിലും ബൈക്കുകളിലൂടെയുള്ള യാത്രയെന്നത് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാന് ഏറെ സൗകര്യപ്പെടുന്ന ഒന്നാണ് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് എത്തേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബൈക്കിലൂടെയാണ് കാരണം അത് ബ്ലോക്കില്ലാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പെടാതെ അല്ലെങ്കിൽ റോഡിനനുസരിച്ച് വേഗത കുറയ്ക്കാൻ സജ്ജീകരണപ്പെടാതെ എല്ലാം നമുക്ക് എത്തേണ്ടയിടത്തേക്ക് ഏറ്റവും പെട്ടെന്ന് എത്താനുള്ള ഒരു സൗകര്യം ബൈക്കിലുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പലരും ലോകം ചുറ്റാനും ഇന്ത്യ ചുറ്റാനും കേരളം ചുറ്റാനുമെല്ലാം ബൈക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ബൈക്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയും നല്ല ബ്ലോക്കുള്ള റോഡുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്കിൻ്റെ ഇടയിലൂടെയെല്ലാം കയറി നമുക്കെത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനം കൈവരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ബൈക്കിൻ്റെ മറ്റൊരു ഉപകാരമാണ് അതിൻ്റെ പാർക്കിംഗ് സൗകര്യം നമ്മൾ ബൈക്കെടുത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏത് ചെറിയ സ്ഥലത്തും നമുക്ക് പാർക്ക് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അതുകൊണ്ട് നിറവേറ്റാനാകും കാരണം നമ്മൾ ബൈക്കല്ലാത്ത മറ്റു വലിയ വാഹനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിങ്ങിനുള്ള സൗകര്യം പല സ്ഥലങ്ങളിലും ലഭിച്ചുകൊള്ളണമെന്നില്ല എന്നാൽ ബൈക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്ഥലങ്ങളിലെല്ലാം പാർക്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനാകും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബൈക്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഓഫ് റോഡ് ബൈക്കുകളുണ്ട് അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മലയോര പ്രദേശങ്ങൾ അതുപോലെ തന്നെ ഉൾഗ്രാമങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അതുപോലെ ഉള്ള ഏറെ കഠിനമായ റോഡുകളിലൂടെയെല്ലാം വളരെ സുഗമമായ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ അതല്ലാതെ സൂപ്പർ ബൈക്കുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഏറെ വേഗത കൂട്ടിയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും സഞ്ചാരിക്കാൻ സാധിക്കും ഇതെല്ലാം ബൈക്കായി അല്ലെങ്കിൽ ടു വീലർ ആയി ഇരുചക്ര വാഹനമായി എന്നതുകൊണ്ട് മാത്രം ലഭിക്കുന്ന ഗുണങ്ങളാണ് ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പലരും ബൈക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു വലിയ കാരണമായി നാം കാണുന്നത് തന്നെ